ഞാൻ മൊബൈൽ ഫോണ് ഇവിടെ ആമസോൺ വഴിയാണ് വരുത്തിച്ചത്ത് നല്ല ക്ലാരിറ്റിയാണ് ഫോട്ടോയ്ക്കൊക്കെ സൂപ്പറാണ് എടുക്കാന് എനിക്കിഷ്ടോവായി നല്ല ഭംഗിയുണ്ട് നമുക്ക് കൈയിൽ ഒതുങ്ങുന്ന നല്ല റിച്ച് ആയിട്ടുള്ള എല്ലാം ഞാൻ ഉദേശിച്ച പോലത്തെ ഫോണാണ് ഞാൻ ഭയങ്കര ഇഷ്ടമായി എനിക്ക് അത് കണ്ടിട്ട് എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് അതിൻ്റെ ക്ലാരിറ്റിയാണ് ഫോണിൻ്റെ ഓരോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള ക്ലാരിറ്റി എനിക്ക് അതാണ് കൂടുതൽ ആവശ്യം ഫോട്ടോ എടുക്കാനാണ് ഞാൻ കൂടുതലും ഫോൺ യൂസ് ചെയ്യുന്നത് എനിക്കതാണ് ഇഷ്ടം എൻ്റെ ഒരു ഹോബ്ബിയാണ് കുറേ ഫോട്ടോ എടുത്ത് കൂട്ടൽ അപ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള ഫോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ